ഞാൻ ഈയിടെ മൊബൈൽ റീചാർജ് ചെയ്തതായിരുന്നു എടീ എടീ ആ എൻ്റെ മൊബൈൽ ദേ കണ്ടോ തീർന്നുപോയി അതാ റീചാർജ് ചെയ്യാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അഞ്ച് ദിവസം ആയതേ ഉള്ളൂ അത് തെറ്റാണോ ഇല്ലയോ അതിന് ഇനി ഇപ്പം വേറെ വല്ലവരുടെയും കളിയാണോ ഇല്ലയോ എന്നൊന്നും അറിയാത്തൊന്നുവില്ല അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ എന്നാ നയൻ ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ ടു ഈ നമ്പർ ആണ് അപ്പോൾ അതിൻറെ അകത്ത് നിന്ന് ഫോൺ വന്ന് പോയിരിക്കുന്നത് എത്രയാണ് എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല